ഒരു ശരാശരി വീട്ടില് ഒരു ആവിശ്യമായ സാധനമാണ് എൽ പി ജി സിലിണ്ടർ എൽ പി ജി സിലിണ്ടർ വെച്ച് പാചകം ചെയ്യാനും അങ്ങനെ പലതരം ആവിശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇത് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമാകുന്നു എൽ പി ജി സിലിണ്ടറുകൾ ഓൺ ആണോ ഓഫ് ആണോ എന്ന് ഭയങ്കര ശ്രദ്ധയോടെ നോക്കേണ്ടതാണ് അനാവശ്യമായി ഓൺ ആക്കി വെച്ചാൽ അത് അവർക്ക് തന്നെ പ്രശ്നമാകും എൽ പി ജി സിലിണ്ടറുകൾ കൊണ്ട് ഭയങ്കര വലിയ ദുരിതങ്ങൾ സംഭവിക്കാം കാരണം എൽ പി ജി സിലിണ്ടറുകൾ തീ തീ കത്തിപിടിച്ചാൽ പൊട്ടിത്തെറിക്കും അത് ഭയങ്കര അപകടകരമാണ് ഇതിനാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓഫ് ആക്കാൻ മറക്കാതെ ഇരിക്കുക രാത്രിയോ പുറത്ത് എവിടെങ്കിലും പോകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതായി മറക്കരുത് ഉപയോഗ ശേഷം ഓഫ് ആണോ എന്ന് രണ്ട് പ്രാവിശ്യം ഉറപ്പ് വരുത്തുക ഉപയോഗമില്ലാത്ത സമയത്തോ അത് മര്യാദയ്ക്ക് ഒരു ചൂടൊ ക്കെ പ്രഷർ കത്താവുന്ന എന്തെങ്കിലും അടുത്ത് വരാതെ നോക്കുക ഇതൊക്കെ ഒരാൾ ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യമാണ്